വര്ദ്ധിച്ചു വരുന്ന ടൂറിസ്റ്റ് സന്ദര്ശനത്തിനെ നേരിടാന് മതിയായ വിഭവം അത്യാവശ്യത്തിന് നമ്മുടെ സ്ഥലങ്ങൾ അവിടെ താമസിക്കാനുള്ള വീടും ലോഡ്ജുകളും പിന്നെ അവര്ക്ക് ഭഷണം കഴിക്കാനുള്ള സൗകര്യത്തിനുള്ള റെസ്റ്റോറൻടുകളൊക്കെയുണ്ട് ഗതാഗതം പാര്ക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ അവര്ക്ക് യാത്ര ചെയ്യാന് അവിടെ നിന്ന് ഗതാഗതം ഉണ്ട് പക്ഷേ അതു കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ കൂടുതൽ സഞ്ചാരികളെ വിനോദ സഞ്ചാരികളെ അവിടേക്ക് ആകര്ഷിക്കും അതെങ്ങനെയെന്നു വെച്ചാൽ കൂടുതൽ സ്ഥലങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നെ കൂടുതല് പച്ചക്കറികളും പൂക്കളും വെച്ചുപിടിപ്പിച്ച് ഉള്ളതിനെ ഒത്ത് ഒത്തിരി കൂടി മനോഹരിതമാക്കുക കൂടാതെ ഭക്ഷണങ്ങളിലും പല തരത്തിലുള്ള വെറൈറ്റികൾ കണ്ടു പിടിക്കുക അപ്പോൾ അവർ കാണാത്ത ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് പുറത്തു പോകുന്നവരൊക്കെയാണേ കൂടുതലും കഴിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പോൾ അതു കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ ഗതാഗത സൗകര്യങ്ങളും അത്യാവശ്യത്തിന് ഉണ്ടെന്നതും വെച്ച് ഒത്തിരി കൂടി മെച്ചപ്പെടുത്തിയാല് കൂടുതല് സഞ്ചാരികളെ അതാകര്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ്